ഞാൻ റീലികളൊക്കെ കാണാറുണ്ട് റീലുകളും ഷോർട്ട്സക്കെ കാണാറുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതലും ഈ മഞ്ജു വാര്യർ ഡാൻസ് കളിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ശോഭന ഡാൻസ് കളിക്കുന്നതൊക്കെ റീലായിട്ട് ഇടാറുണ്ട് അപ്പതൊക്കെ കാണാറുണ്ട് പിന്നെ പിന്നെ ഡ്രീം ക്യാച്ചർന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നുണ്ട് അതത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പതെല്ലാം കാണാറുണ്ട് പിന്നെ അല്ലാത്ത റീലുകൾ റീലുകളും കാണാറുണ്ട് ഷോർട്ട്സി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ കാണുന്ന ഷോർട്ട്സികളുണ്ട് അത് ഒരു കുറച്ചെ ഉണ്ടാവൊള്ളൂ പിന്നെ യൂട്യൂബിൽ അല്ലാണ്ട് ഇടുന്ന ഡാൻസ് പ്രോഗ്രാമ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് റീലുകളിൽ കൂടുതലായിട്ടും എന്താ പറയാ ഡാ ഡാൻസിനെ കുറിച്ചാണ് ഞാൻ കാണാറ് ഡ്രീം ക്യാച്ചറിൻ്റെ ഡാൻസ് പിന്നെ ആര്യന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിയുണ്ട് അവളുടെ ഡാൻസ് പിന്നെ അമൽ രാജിന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനുണ്ട് അവൻ്റെ ഡാൻസ് എല്ലങ്ങള് എല്ലാം കാണാറുണ്ട് പിന്നെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡാൻസാണ് ഇവർ കാഴ്ചവെയ്ക്കാറുള്ളത് അതുകാരണം നമ്മുക്ക് ബോറടിപ്പിക്കൂല അതുകൊണ്ട് ഇതെല്ലാം കാണാറുണ്ട് പിന്നെ റീലുകൾ കൂടുതലും കോമഡി ടൈപ്പ് റീലുകൾ കാണാറുണ്ട് പിന്നെ കോമഡി ടൈപ്പ് ഷോർട്ട്സ് കാണാറുണ്ട് എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ട്ടം നർത്തകരുടെ അതായത് ഡാൻസിനെ കുറിച്ച് ഇതാണ് ഒരു പാട്ട് വെച്ച് അതിന് പല പല സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ആ റീലുകളാണ് കൂടുതലും കാണാൻ താൽപ്പര്യം